ഞാൻ വാങ്ങിച്ചത് വാച്ച് ആണ് എനിക്ക് മൊത്തം രണ്ട് വാച്ചുണ്ട് അതിലൊരു വാച്ച് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ വാച്ച് ആണ് അത് ഫോസിലിൻ്റെ വാച്ച് ആണ് അത് പക്ഷേ നല്ല വാച്ച് ആണ് അതിൽ അതിങ്ങനെ താഴെ വീണിട്ടൊന്നും അതിൻ്റെ ഗ്ലാസിനൊന്നും അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല അത് നല്ല രീതിക്ക് തന്നെ ഇപ്പോഴും ഇപ്പം മൂന്നുനാല് വർഷമായിട്ട് തന്നെ എൻ്റെ കയ്യിൽ വാച്ച് തന്നെയാണ് ഉള്ളത് അത് എനിക്ക് നല്ല കംഫോർട്ടബിളും ആയിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറേ നാളായിട്ടും ഈ മൂന്നുനാല് വർഷത്തിനിടയ്ക്ക് അതിന് അത്ര വലിയ കേടുപാടുകൾ ഒന്നും വന്നിട്ടില്ല ഒരു മൂന്നുനാലഞ്ച് തവണ താഴേ വീണ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയത് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതിൻ്റെ സ്ട്രാഫ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് മാറി കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബാക്റ്ററി ഒന്ന് മാറി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ വാച്ചിൽ എൻ്റെ ഈ വാച്ചിൽ വന്ന പ്രശ്നം എന്ന് പറയാൻ പിന്നെ സൊണാറ്റയുടെ വാച്ച് ആണ് ഈ സൊണാറ്റയുടെ വാച്ചും ഫോസിലിൻ്റെ വാച്ചും രണ്ടും വാട്ടർ പ്രൂഫ് ആണ് അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും ഇട്ടുകൊണ്ട് നടക്കാം അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വാച്ച് ആണിത് രണ്ടും വാച്ച് യൂസ് ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ വാച്ച് ഞാൻ അങ്ങനെ ഊരി വെക്കാറില്ല ഞാൻ എപ്പഴും കിടക്കുമ്പം വരെ അതിട്ടുകൊണ്ടാണ് ഞാൻ കിടക്കാറുള്ളത് എൻ്റെ വാച്ച് രണ്ടും നല്ല കംഫോർട്ടബിൾ ആണ് ഈ രണ്ട് വാച്ചിനും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല താഴെ വീണാലും അത്ര പെട്ടെന്ന് കേടാപത്തൊന്നു ഇല്ല ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം ബാറ്ററിയുടെ ഒരു ചാർജ്ജ് തീർന്നാലുള്ള പ്രശ്നം ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വാച്ചിന് ഇല്ല